വാർത്തകൾ ശ്രദ്ധിക്കാൻ പുതുതലമുറയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലോകത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ എന്താ അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ ഇതിപ്പോ ജനറൽ നോളജ് നമുക്ക് ഭയങ്കരമായിട്ട് പല ഇപ്പഴത്തെ കുട്ടികൾക്ക് ജനറൽ നോളജ് വെച്ച് നോക്കുമ്പോൾ വളരെയധികം കുറവാണ് അപ്പം ഈ നമ്മുടെ ലോകത്തു നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് അവർ അറിയേണ്ടത് അത്യാവശ്യമാണ് അപ്പോ ഈ വാർത്തകളൊക്കെ ശ്രദ്ധിക്കാന്ന് പറയണതാവും ഏറ്റവും നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ് അത് ഏതൊരു മീഡിയ ആയിക്കോട്ടെ ടിവി ആയിക്കോട്ടെ മൊബൈൽ ഫോണിലൂടെ ആയിക്കോട്ടെ പത്രങ്ങളായിക്കോട്ടെ ഏതൊരു രീതിയിലാണെങ്കിലും എന്താ വാർത്തകൾ ശ്രദ്ധിക്കേണ്ടത് നല്ലത് തന്നെയാണ് പിന്നെന്തെന്ന് വെച്ചാൽ നമുക്കൊരുപാട് കാര്യങ്ങളുണ്ട് നമ്മളുടെ ചുറ്റുവട്ടത്തല്ലാതെ നമ്മടെ സമൂഹത്തിൽ നടക്കുന്ന നമ്മുടെ ലോകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെ കുറിച്ചെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യ എല്ലാ വല്യ ഡീറ്റൈൽ ആയിട്ടില്ലെങ്കിലും നമുക്ക് നമ്മൾ ചെറുതായിട്ടെങ്കിലും അതിനൊരു അറിവ് അതിനൊരു കുറച്ച് ടേർമ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതോണ്ടന്നെ പുതു തലമുറക്കാർ ഫുള്ളും മൊബൈൽ ഗെയിം എന്നുള്ള രീതിയിലാണ് പോയ് കൊണ്ടിരിക്കുന്നത് അതുമാത്ര അതൊഴിച്ച് നമുക്ക് അവർക്ക് കുറച്ച് ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ലോകത്തെക്കുറിച്ച് അറിയാൻ വേണ്ടീട്ട് വാർത്തകളൊക്കെ കേൾക്കുന്നത് നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം